ഹെലോ സാർ ആ സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞോ വിശേഷം വല്ലതുമുണ്ടോ ആ ആ പിന്നെ പിന്നെ സ്വാതന്ത്ര്യദിനം നമുക്ക് അടിച്ചു പൊളിക്കണം അത് വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ അത് നമുക്ക് ആഘോഷിച്ചിരുന്നത് ഇക്കൊല്ലം പഴയത് പോലെ തന്നെ ആഘോഷിച്ചേക്കാം ആ ആ അതെ അതെ അതെ അതെ

ആ ഹാ ആ പിന്നെ നമ്മൾ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ആ നമ്മുടെ നമ്മുടെ നാട്ടുകാരനായ ആ ഓഫീസർ ഇല്ലേ നമ്മൾ എസ് ഐ ഇല്ലേ ആ ബാങ്കിലുള്ള പട്ടാളത്തിലെ ആ ആ നേരത്തെ പറഞ്ഞ ആ അദ്ദേഹത്തെ നമുക്ക് വിശിഷ്ട വ്യക്തി ആയിട്ട് വിളിച്ചേക്കാം അപ്പം പിള്ളാർക്കും ഒരു ഒരു പിള്ളാർക്കും ഒരു മോട്ടിവേഷൻ ആവും പിന്നെ പുള്ളിക്ക് പുള്ളിയുടെ അനുഭവങ്ങളുമൊക്കെ പറയാൻ പറ്റും പട്ടാളത്തിലെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആളാരാണ് ആ ആ ഹാ മറ്റേ കാർഗിൽ യുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്നതാണോ

ആ ആ ആ എന്നാലും പട്ടാളക്കാരൻ ആണല്ലോ അതിൻ്റേതായ ഒരു ഇത് കാണും പിള്ളേർക്ക് പട്ടാളക്കാരൻ ഇവിടെ ആദ്യമായിട്ടല്ലേ അതെ അത് ഫിക്സ് ചെയ്യാം അതെ അതെ അതെ അതെ അതെ അതെ ആ ആ ആ പിള്ളേർക്ക് ഓരോ സ്വീറ്റ്സ് കൊടുക്കണ്ടേ സ്വീറ്റ്സൊക്കെ കൊടുക്കണ്ടേ മുട്ടായി ഒക്കെ കൊടുത്തു നമുക്ക് ഒരു ആ ഹാ ആ ആ ആ ഹാ സാറിനെ എത്തിക്കാം ആ ആ ആ അതെ അതെ അതെ അതെ ആ പൊതുസമ്മേളനം കൂടാം പൊതുസമ്മേളനത്തിൽ ഈ സാറ് തന്നെ വിശിഷ്ട അതിഥിയായി പുള്ളി പുള്ളിയുടെ അനുഭവങ്ങൾ പങ്കു വയ്ക്കും

ആ കൊണ്ടുപോരുന്നു അതെ അതെ ആ സാർ ആ സാറ് പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ

ദേശഭക്തിഗാനം വേണം ആ കൊണ്ടു പോയിട്ടുണ്ട് ഈ തൊപ്പിയൊക്കെ ഹാ ഹാ തൊപ്പി ആ തൊപ്പി സാറിൻ്റെ പിന്നെ പിന്നെ നമുക്ക് ആ ഒരു ബാർ ഇല്ലേ സൈഡിൽ വരേണ്ട ഒരു ചുവന്ന ഒര് ബാറു പോലെ ഒരു സംഭവമില്ലേ ആ ത്രിവർണ്ണ പതാകയുടെ കളറിൽ അത് വേണമെങ്കിൽ ആ റിബൺ വച്ചുള്ളത് സെറ്റ് ചെയ്യാം അപ്പം ഇച്ചിരി കളർഫുൾ ആയിക്കോളും ആ ആ അതെ അതെ ആ ആ ആ

അപ്പം ആ ആ അപ്പം ആ പരേഡും കൂടെ ഒര് പരേഡ് കൂടെ നടത്താം പരേഡും കൂടെ

അല്ല ഈ പൊതുസമ്മേളനം പൊതുസമ്മേളനം കഴിഞ്ഞിട്ട് പരേഡും വച്ചു അങ്ങ് ചെയ്താൽ പോരെ മ്മ് ആ ആ ആ ഓരോ ക്ലാസുകാരോടും പറയാൻ പറയാം അതെ അതെ ആ ആ ആ ആ പിന്നേ എന്നാണ് ഭാരതാംബയുടെ ഒരു പ്ലോട്ട് ഭാരതാംബ മ്മ് മ്മ് ആ ഇത്രയൊക്കെ മതിയായിരിക്കും സാർ ഇത്രയൊക്കെ മതി ആയിരിക്കും പോരേ

ഓക്കേ ആ ഓക്കെ ഓക്കെ ആ അപ്പം നാളെ കാണാം അല്ലേ ഓക്കേ ഓക്കേ ബൈ